ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തിനാല് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി പതിനെട്ട് പത്ത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഇരുപത്തി രണ്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ്